ഹലോ ഹലോ

എന്തുപറ്റി പെട്ടന്നാണോ ഓക്കെ ഓക്കെ കൊടുത്തല്ലേ അങ്ങനെ പറഞ്ഞല്ലേ ഓക്കെ ഇല്ല രാവിലെ ഞാൻ വീട്ടിലില്ലായിരുന്നു ഞാൻ പുറത്തായിരുന്നു ഇല്ല ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു

ഇല്ല അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമ്മള് കണ്ടിട്ടില്ല അങ്ങനെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഹോസ്പിറ്റലില് എന്തിലേലും കൊണ്ടുപോയായിരുന്നോ അവനെ ഓക്കെ അപ്പോൾ അല്ല ഞാൻ പുറത്താണ് ഉള്ളത് അപ്പോൾ ഞാൻ നോക്കട്ടെ ഞാൻ വീട്ടിൽ നിന്ന് ആരെയെങ്കിലും ഒന്നു പറഞ്ഞു വിടാൻ നോക്കാം അതേ അല്ലെ അതെ ഓക്കെ ഞാൻ എന്തായാലും വീട്ടില് വിളിച്ചിട്ട് ആരോടേലും ഒന്ന് വന്നു കൂട്ടാൻ പറയാം കാരണം ഞാൻ ഇപ്പോൾ എത്തില്ല ഞാൻ പുറത്താണുള്ളത് വേറെ പ്രശ്നം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവന് അതെ ഓക്കെ അതെ ഓക്കെ അ ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണോ ഇറങ്ങിയത്

വീട്ടിലേക്ക് വൈഫിനെ എന്തിനേലും വിളിച്ചിരുന്നോ ഓക്കെ എപ്പത്തേക്കാണ് വരണ്ടത് ഇപ്പോൾ ഇതാണോ നിങ്ങൾക്ക് ടൈം ഉണ്ടാകുമോ നോക്കാൻ ഓക്കെ ഓക്കെ എന്നാൽ നോക്കട്ടെ ഞാൻ പെട്ടെന്ന് തന്നെ ആരെയേലും അങ്ങോട്ട് പറഞ്ഞുവിടാൻ നോക്കാം ആയിക്കോട്ടെ